ചിത്രം എനിക്ക് ചെറുപ്പം മുതലേ തന്നെ ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ബുക്ക്കൾ നോക്കിയാണ് കൂടുതലും ചിത്രങ്ങൾ വരച്ചിരുന്നത് വരയ്ക്കുന്നത് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഓൺലൈൻന്ന് പറയുമ്പോൾ ഫോൺ നോക്കി വരയ്ക്കും ഫോണിൽ കാണുന്ന ചില ഇഷ്ടപ്പെട്ട ചിത്രങ്ങളൊക്കെ ഞാൻ നോക്കി വരയ്ക്കാൻ അല്ലെങ്കിൽ നോക്കി വരയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ഞാൻ ബുക്ക് നോക്കിയും ഫോൺ നോക്കിയെക്കെയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് അതിന് വലിയ പ്രക്രിയകൾ എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും വരയ്ക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് അതായത് ഇപ്പോൾ കഥ ബാലരമ ബാലഭൂമിയിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ വരയ്ക്കാൻ എനിക്ക് ഇഷ്ട്ടമാണ് അതുപോലെ മൃഗങ്ങളുടെ പടങ്ങൾ വരയ്ക്കാൻ എനിക്ക് ഇഷ്ട്ടമാണ് അതൊക്കെയാണ് ഞാൻ കൂടുതലും വരയ്ക്കുന്നത് തന്നെ പിന്നെ എനിക്ക് പ്രകൃതിയുമായിട്ട് ചേർന്നിട്ടുളള പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള പടങ്ങൾ ആ ചിത്രങ്ങളൊക്കെ ഞാൻ വരയ്ക്കാറുണ്ട് അതും ബുക്ക് നോക്കിയും ഫോൺ നോക്കിയാണ് വരയ്ക്കാറ് പിന്നെ പ്രത്യേകിച്ച് വലിയ പ്രക്രിയകളൊന്നും അതിനു വേണ്ടി ഞാൻ എടുക്കാറില്ല വരയ്ക്കുന്നതിൽ ആത്മാർത്ഥത കാണിക്കാറുണ്ട് എനിക്ക് ഞാൻ പരിശ്രമിച്ച് വരയ്ക്കുമ്പോഴെ എനിക്ക് എന്നെക്കൊണ്ടാകാത്ത പടങ്ങളൊക്കെ ഞാൻ പകുതിവെച്ച് ഉപേക്ഷിക്കുകയാണ് പതിവ് എന്നിരുന്നാൽ പോലും എനിക്ക് മൃഗങ്ങളെയും എന്താണ് ഇപ്പോൾ ചെറിയ ചെറിയ കഥാപാത്രങ്ങളെയൊക്കെ വരയ്ക്കാനായിട്ട് വളരെ ഇഷ്ട്ടമാണ് അത് ഞാൻ ഇപ്പോൾ പൂർത്തീകരിക്കാറുണ്ട് ഞാൻ പരമാവധി വരച്ച് കമ്പ്ലീറ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മയായതു കൊണ്ട് തന്നെ അവർക്ക് വരച്ചു കൊടുക്കേണ്ട പടങ്ങളൊക്കെ മിക്കപ്പോഴും വരയ്ക്കാനായിട്ട് എനിക്ക് വളരെ ഇഷ്ട്ടമാണ് ഞാൻ വരച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ വളരെ സന്തോഷം കിട്ടുന്നതാണ് ഈ അടുത്തിടെ എന്ന് പറയുമ്പോൾ ഇപ്പോഴായി പിന്നെ കുട്ടികൾക്ക് ഒത്തിരി കാര്യങ്ങൾ വരയ്ക്കാനും ഒക്കെ ഉണ്ട് അപ്പം ഈ അടുത്തിടെ വരച്ചൊരു ചിത്രം എന്ന് പറയുമ്പോൾ കുളം അതിൽ താമര അതിനെ ചുവട്ടിൽ ഇങ്ങനെ ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ചിത്രമാണ് വരച്ചു കൊടുത്തത് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് വരച്ച് മിക്കതും ഞാൻ കളറ് ചെയ്യാറാണ് പതിവ് എനിക്ക് ഫാബ്രിക് പെയിൻറ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ട്ടമാണ് അപ്പം ഞാൻ മിക്ക ചിത്രങ്ങളും വരച്ചിട്ടുണ്ടെങ്കിൽ അതിന് കളറ് കൊടുത്തു കഴിയുമ്പം എനിക്ക് ഒന്നു കൂടി ആ ചിത്രങ്ങൾക്ക് ജീവൻ കിട്ടിയതായിട്ട് തോന്നാറ് അപ്പം ഞാൻ എ ഫോർ ഷീറ്റിലാണ് വൈറ്റ് പേപ്പറിൽ ബുക്ക് അതിലൊന്നും വരയ്ക്കാറില്ല ഇങ്ങനെ പേപ്പറുകളിൽ വരച്ചിട്ട് അത് സൂക്ഷിച്ച് വയ്ക്കയാണ് ചെയ്യണത് അപ്പം അതിൽ ആണ് ഞാൻ പെൻസിൽ കൊണ്ട് ആണ് വരയ്ക്കുക അതിന് ശേഷം ഞാൻ മാർക്കറൊക്കെ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ഒക്കെ ഒന്ന് കൊടുത്തു നോക്കും എന്നിട്ട് എനിക്ക് ഒരു കളറിങ് കൂടി ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ചിത്രത്തിനൊരു പൂർത്തികരണം വന്നതായിട്ട് എനിക്ക് തോന്നാറുള്ളു അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് ഞാൻ വരയ്ക്കുന്നത് ചെറിയ കുട്ടികൾക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കാണാൻ കളർ ഫുളളായ ചെറിയ ചെറിയ ചിത്രങ്ങളാണ് ഞാൻ കൂടുതലും വരയ്ക്കാറുള്ളത്